എന്നെ സമ്പന്ധിച്ച് ഞാനവസാനം വായിച്ച പുസ്തകായ ആട്ജീവിതം തന്നെയാണ് ബുദ്ധിപരമായിട്ടും എനിക്ക് സ്വാധീനം ചെലുത്തീട്ടുള്ളത് കാരണം അതിലെ ആ നജീബ് എന്ന് പറയുന്ന ആ കഥാപാത്രത്തിന്റെ അവസ്ഥകൾ നമുക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കണതാണ് കാരണം അയാളിനി എന്താ ചെയ്യാ എന്താ മരുഭൂമി കടന്ന് പുറത്ത് വരുവോ അയാള്ക്ക് വേറെ വണ്ടി കിട്ട്വോ പോവാന് അല്ലെങ്കിൽ കാട്ടറബി തിരിച്ച് എന്താ മസ്സറയിൽ കൊണ്ടോകുവോന്നുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് കുറെ മാനസികായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ അയൾ ഗള്ഫിൽ വന്നിറങ്ങുന്നത് തന്നെ എന്താ വിമാനത്താവളത്തിൽ നിൽക്കുമ്പോൾ ഒരു അറബി വന്നിട്ട് അയാളെ പിടിച്ചോണ്ട് പോവാണ് മസ്സറക്ക് അപ്പോൾ അയാൾ ആ ഇരുട്ടത്ത് ആ മണലക്കെ കാണുമ്പത്തന്നെ പറയുന്നുണ്ട് ഇങ്ങനെയൊരു സ്ഥലത്ത് ഞാന് എത്തിപ്പെട്ടല്ലോ ഞാനെന്താ ചെയ്യാന്ന് പക്ഷേ കുറെ കാലം അയൾ മൂന്ന് മൂന്നര വര്ഷം അവടെ പിടിച്ച് നിക്കേം എന്നിട്ടും അയാൾ എന്താ ആ ഒരു അയാളുടെ നല്ല മനസ്സു കാരണം ആ അറബീനെ ഒന്നും ചെയ്യാതെ ആ അറബിയൊരു കല്യാണത്തിന് പോയപ്പോൾ അയാൾ ഓടിപ്പോരുവാണ് ആ ഓടിപ്പോരുമ്പോൾ മണലിന്റെ ചൂട് കാരണം കാലൊക്കെ പൊട്ടി പിന്നെ അതേപോലെ തന്നെ കൂടൊണ്ടായിരുന്ന ഹമീദ്ന്ന് പറയുന്ന കഥാപാത്രം വെള്ളം കിട്ടാതെ മരീകജിക കണ്ടിട്ട് അത് വെള്ളമാണെന്ന് പറഞ്ഞ് ഓടി പോവുകയും എന്നിട്ട് വെള്ളം കിട്ടാത്തോണ്ട് മണലെടുത്ത് തിന്നിട്ട് ലാസ്റ്റ് ചോര ചര്ദ്ദിച്ച് മരിക്കാണ് അപ്പോൾ ആ ഒരവസ്ഥ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കേൾക്കുമ്പത്തന്നെ ഒന്നും ആ ഹമീദിനെ ഹക്കീമിന് വേണ്ടീട്ട് ചെയ്യാൻ നജീബിന് ഒന്നും കഴിഞ്ഞില്ല ഒരു വെള്ളം എടുക്കാത്തത് എന്തുകൊണ്ടാന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കും കാരണം ആ ഒരവസ്ഥ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമാണുണ്ടായത് വെള്ളം എടുക്കനെണെന്നോ അല്ലെങ്കിലങ്ങനൊന്നുവുള്ള ചിന്ത അവിടുണ്ടാകുന്നില്ല അതുകൊണ്ടന്നെ നമുക്ക് തോന്നും ഇവർ രക്ഷപ്പെടുവോ ഇല്ലേന്നുള്ളൊരു ഭയങ്കര ആശ ആശങ്ക നമുക്ക് ആ ഒരു പുസ്തകം വായിക്കുമ്പം ഉണ്ടാകും